ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈനിൽ നിന്ന് നമ്മുടെ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഒരു സെറ്റാണ് കാര്യം ഒരു ഓഫറൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് അവർ ഇത്ര ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇത് കണ്ട് ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിതാണ് പക്ഷെ സംഭവം അവർ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത് വലിയ ഹൈ ക്വാളിറ്റി ക്യാമറ പിച്ചർ ക്വാളിറ്റി കൂടുതലാണ് പിന്നെ ബാറ്ററി എപ്പോഴും നിൽക്കും കുറേ നേരം നമുക്ക് ബാറ്ററി ലൈഫ് ഉണ്ട് ഇതിന് പിന്നെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ കളർ നല്ല ഭംഗിയാണ് അതിൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി നല്ല രസമുണ്ടായിരുന്നു അതിനകത്ത് ഫോട്ടോയിൽ അവർ കാണിച്ചത് അത് കണ്ടിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത് പക്ഷേ നമുക്ക് കയ്യിൽ കിട്ടിയ സാധനം എന്നു പറയുന്നത് ആ കാണുന്ന അതിൻ്റെ ബോഡിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കളർ ആണ് കളർ തന്നെ മോശമാണ് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച കളറെ അല്ല എനിക്ക് കിട്ടിയത് കയ്യിൽ കിട്ടിയ പ്രോഡക്റ്റ് പിന്നെ അതിൻ്റെ പിക്ചർ അതിൻ്റെ ക്യാമറ നോക്കുക ആണെങ്കിൽ അവർ പറഞ്ഞത് വച്ച് നോക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി വളരെ അധികം കുറവാണ് ഫോട്ടോ ഒക്കെ ആണെങ്കിലും നമ്മൾ എടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇല്ല അതിനകത്ത് കാണുമ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ക്യാമറയാണ് പിന്നെ ബാറ്ററി പറഞ്ഞ മാതിരിത്തെ നമ്മൾ ഇത് ചാർജ് ഫുൾ ചാർജ് ആയാലും അന്നത്തെ ദിവസം തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചാലും യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ചാർജ് പെട്ടെന്ന് ഇറങ്ങണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചാർജ് നിക്കണ ലോങ്ങ് ആയിട്ട് ഒന്നും നിക്കണ മാതിരിയുള്ള ഇതൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ പേർസണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അതിനകത്ത് എനിക്ക് അത് എൻ്റെ പൈസ പോയി എന്ന് തന്നെ പറയാം ഇതിപ്പോൾ ഞാൻ ഇപ്പൊ കടയിൽ പോയപ്പോൾ ഞാൻ ഇത് രണ്ടുമൂന്നു ഷോപ്പിൽ നേരിട്ട് അന്വേഷിച്ചപ്പ ഇതേ സെറ്റ് തന്നെ നമുക്ക് ഇതിലും ഞാനിപ്പോൾ കൊടുത്തതിനെക്കാളും കൊറവ് പൈസയിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ ഒരു അറിവ് അപ്പോൾ എനിക്കും മൊത്തത്തിൽ ഡിസപ്പോയിൻ്റടാണ് ഞാനീ പ്രൊഡക്റ്റിൽ